ഞങ്ങളുടെ ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് കോഴി ഫാമ് പിന്നെ നമ്മുടെ തേയില തേയില കൃഷി നടത്തുന്ന അതായത് നമ്മളെ വ്യവസായങ്ങളൊക്കെ ആണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പം അത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കോഴി ഫാമ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് കൊടുത്താൽ തന്നെ നമുക്ക് മെച്ചമായ രീതിയിലാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ എന്ന് പറഞ്ഞാൽ മുന്ന് ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് വരുന്നത് അപ്പം നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ പൈസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്കൊരു കുഞ്ഞിന് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ നൂറ് രൂപക്ക് വിറ്റാലും നമുക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ല അതിന് കോഴിക്കുള്ള തീറ്റയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറമെന്ന് വാങ്ങിയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴി ഫാമ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് കൃഷീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും മാ മാമ്പഴ കൃഷി നടത്താറുണ്ട് മാമ്പഴ കൃഷി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പുറമെ നിന്നുള്ള വരുന്ന മാമ്പഴങ്ങളെ പോലെയുള്ള മാമ്പഴങ്ങൾ ഇവിടെ നല്ല രീതിയിൽ വളർത്തി അത് പുറമെ കൊണ്ട് വിൽക്കുക അങ്ങനത്തെ കൃഷികളൊക്കെ നടത്തുകയാണെങ്കിൽ പലതരം പരിപാടികൾ നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ പന്നി ഫാമ് അങ്ങനത്തെ എന്തേലും ഒക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം പന്നി ഫാമ് പന്നി ഇറച്ചി ഒക്കെ ഒരു നാനൂറ്റി ചില്ലറ രൂപ വില ഉണ്ട് അപ്പം പന്നി ഫാമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോത്ത് പോത്ത് വ്യാപാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടത്താറുണ്ട്